തയ്ക്കാനൊക്കെ ആണെങ്കിൽ ഏത് കാര്യത്തിനും പിന്നെ തുണ് നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ മകളാണ് ഞാൻ പ്രത്യേകം ഒരു ആയിട്ട് കണ്ടിരിക്കുന്നത് അവളെയാണ് കാരണം അവൾക്ക് നല്ല ഇതുണ്ട് കളർ പറഞ്ഞുതരാൻ ഒക്കെ പിന്നെ ഞാനും പ്രത്യേകിച്ചൊന്നും നോക്കില്ല നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടല്ലോ ആ കണക്കുകൂട്ടൽ പ്രകാരമാണ് പിന്നെ തുണി കളറുകളൊക്കെ എടുക്കുന്നത് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ആണ് റോസ് റോസ് അതിൻ്റെ പിന്നെ റോ അതിന് എതിൻ്റെ കൂട്ടത്തിലും മാച്ച് ഇതാവുമല്ലോ ബ്ലാക്ക് അതുകൊണ്ട് ഞാൻ ഏത് കളർ എടുത്താലും അതിൻ്റെ കൂട്ടത്തിൽ ബ്ലാക്കും കൂടെ ഇട്ടാണ് മിക്കവാറും ബ്ലാക്ക് പാൻറിന് ഞാൻ റോസ് ടോപ്പോ അല്ലെങ്കിൽ ന ഗ്രീനോ അല്ലെങ്കിൽ പിന്നെ വയലറ്റ് നമ്മുടെ പല കളറുക അല്ലാത്ത അല്ലാതെ ഉള്ള ഏത് കളറും ബ്ലാക്കിൻ്റെ കൂട്ടത്തിൽ പോകുമല്ലോ അതുകൊണ്ട് ന കളർ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുന്നത് ബ്ലാക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഏത് കളർ ആയാലും പിന്നെ ഗോൾഡൻ കളർ അങ്ങനെയൊക്കെ ഉള്ള കളറുകളായിരിക്കും ഇഷ്ടമുള്ളത് പിന്നെ അങ്ങനെ കളറും കളർ എടുക്കാനാണെങ്കിലും മോളെ കൂട്ടി ആണ് പോകുന്നത് അവൾക്ക് നല്ല കളർ കളർ കോമ്പിനേഷൻ ഉണ്ട് നല്ല വശമുണ്ട് എടുക്കാനൊക്കെ ആയിട്ട് ഇന്നവർക്ക് ഇന്നത് ചേരും എന്നാണെങ്കിലും പറഞ്ഞുതരും അതുകൊണ്ട് കളർ ഇങ്ങനെ ഒരു നെ തയ്യൽ സംബന്ധമായ കാര്യത്തിൽ തുണി എടുക്കുന്നതിലും തയ്ക്കുന്നതിലും ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ട ഒരു എന്താണ് അത് ഞാൻ ന നല്ല നല്ല കളറുകൾ ചേർത്തെടുത്തത് അഭിപ്രായം പറയാൻ എടുക്കുന്നവരുണ്ട് കണ്ട് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയുന്നവർ ഉണ്ട് ഇപ്പോൾ